ആ ഉണ്ട് കാരണം ഞാൻ കൂടുതലും കാണുന്നത് ഫുഡ് ഫ്ളോഗോ അല്ലെങ്കിൽ ഫുഡ് വ്ളോഗൊക്കെ ആയിരിക്കും അത് പിന്നെ എന്റർടൈൻമെന്റ് ആയിട്ട് കാണുന്നതെന്ന് പറയുക എം ഫോർ ടെക്കിൻ്റെ വീഡിയോ അതൊക്കെ നല്ല ചാനൽസാ കൂടുതലും നോളജ് തരണ കുറേ ചാനലുണ്ട് യൂട്യൂബിലുള്ള അതുപോലെ എന്റർടൈൻമെന്റ് മാത്രമല്ല അത് ഇപ്പോൾ ഡെഡ് ടോക്സ് നമ്മൾ സ്പീക്കിങ്ങ് സ്കിൽസൊക്കെ ഇമ്പ്രൂവ് ആക്കാൻ തോനെ സഹായിക്കുന്നൊരു ഒരു ആപ്പ് ഒരു യൂട്യൂബ് ചാനലാണ് ഡെഡ് ടോക്സ് അതില് നമുക്ക് ഇംഗ്ലീഷൊക്കെ ഇമ്പ്രൂവാവണമെന്ന് ആഗ്രഹിക്കുന്നവർ ആ ചാനലൊക്കെ കണ്ട് കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും